ഹലോ ആ എനിക്ക് വൈറൽ ഫീവർ ആണ് എനിക്ക് അതിൻ്റെ മരുന്ന് വേണം ഡോക്ടറിനെ കണ്ടില്ല ആ ആ ഛർദ്ദിൽ വലിയ കുഴപ്പം ഇല്ല ആ പനിയുണ്ട് നല്ല ടെമ്പറേച്ചർ ഉണ്ട് ആ ആ എനിക്ക് നാൽപ്പത്തെട്ട് വയസ്സ് ഡോളോ സിക്സ് ഫിഫ്റ്റിയോ ആ ആ ഓക്കെ

ഓക്കെ ഓക്കെ തലവേ തലവേദനയും ബോഡി പെയിൻ മുഴുവനും ഉണ്ട് ബോഡി ഫുൾ പെയിൻ ആണ് ആ ആ ആ ആ ഇന്നലെ തൊട്ട് പനി തുടങ്ങിയതേ ഉള്ളൂ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഈ ഡോളോ അപ്പോൾ എത്ര നേരം കഴിക്കേണ്ടി വരും എട്ട് മണിക്കൂർ ഇടവിട്ട് ആ ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു